ഹൈക്കിങ്ങിനിടെ എപ്പോഴെങ്കിലും വഴിതെറ്റി നമ്മൾ കുടുങ്ങി പോകുവാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ എങ്ങനെ തിരിച്ച് വരാനുള്ള വഴി കണ്ടെത്തും എന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുവാണേൽ നമുക്ക് ആദ്യം നമ്മൾ ലൊക്കേഷൻ നോക്കണം നമ്മൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നത് എന്ന് ഉള്ളതിൻ്റെ ലൊക്കേഷൻ നോക്കണം എന്നിട്ട് നമ്മൾ ലൊക്കേഷൻ നമുക്ക് അറിയാമായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിൻറ്റിലോട്ട് തിരിച്ച് നമ്മൾ വന്ന് വഴിക്ക് അൽ വന്ന വഴിക്ക് പോകാൻ പറ്റുവെങ്കിൽ ആ വഴിക്ക് തന്നെ പോകണം ഇല്ലെങ്കിൽ നമ്മൾ വേറെ വഴി നോക്കണം വേറെ വഴി കണ്ടെത്തുക ഇപ്പം നമ്മൾ ഒരു ഒരു ഇത് ഒരു ഹൈക്കിങ്ങിനൊക്കെ പോകുമ്പോൾ ആദ്യം നമ്മൾ കുറച്ച് സേഫ്റ്റിക്കുള്ള സാധനങ്ങൾ എടുക്കണം ഒന്ന് ഫസ്റ്റെയ്ഡ് ബോക്സ് എടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഫുഡ് എടുക്കണം വാ അതുപോലെ തന്നെ വെള്ളം എടുക്കണം അങ്ങനെ നമ്മൾ ഭക്ഷണത്തിനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം എന്നിട്ടാണ് നമ്മൾ ഒരു ഹൈക്കിങ്ങിനൊക്കെ പോകാവുള്ളൂ കാരണം നമുക്ക് ഏത് സമയത്ത് എവിടെ വെച്ച് എന്ത് സംഭവിക്കാം എന്നൊരു ഒരിതായത് കൊണ്ട് നമ്മൾ അപ്പം അതിന് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോകുമ്പം ശ്രദ്ധയോടുകൂടി വേണം പോകാൻ ശ്രദ്ധ നമുക്ക് മെയിനാകും പോകുന്ന വഴിക്ക് പല അപകടങ്ങളൊക്കെ കാണുമെങ്കിൽ നമ്മൾ അതിനെ ഒക്കെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കുക

പോകുമ്പോൾ നമുക്ക് വഴി തെറ്റിയാലും ആ വഴി തെറ്റിയാലും നമ്മൾ ഭയപ്പെടരുത് നമ്മൾ തിരിച്ച് എത്തും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാകണം